ഹലോ ആ സ്വാമി സ്വാമി എൻ്റെ പേ ഞാണ് എൻ്റെ മോളുടെ വിവാഹമാണ് സ്വാമി അതിന് എനിക്ക് അതിനൊരു ആ ആ അതൊരു ആ മോളുടെ കല്ല്യാണമാണ് അതിന് ഒരു ആ സമയം കുറിക്കണം ആ ആദ്യം ആദ്യം ജാതകപ്പൊരുത്തം നോക്കണം അതിന് സ്വാമിക്ക് എപ്പോൾ എപ്പോഴായിരിക്കും സമയം അങ്ങോട്ടൊന്ന് വന്ന് എല്ലാതും ജാതകം എല്ലാം കൊണ്ടൊന്ന് വരാൻ ഏത് സമയത്ത് വന്നാലൊന്ന് കാണാൻ പറ്റും ആ നാല് വരെ ആ ആ ആ ആ ആ ആ ആ ആ അത് ഗുരുവായൂർ വെച്ച് വിവാഹം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ആലോചന അവർ അത് അത് അതിന് പ്രത്യേകം എന്തൊക്കെയോ അങ്ങനെ നോക്കേണ്ട വല്ലതും ഉണ്ടോ അതോ നമ്മളെ ഇത് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തിയാൽ മതി അല്ല അത് പറ

ആ ആ ആ അവിടെ ഓ ആ ഓ അത് ഓ

ആ ആ ആ ആ അപ്പോൾ അവർക്ക് തന്നെ ആ എൻ്റെ എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്ത് ഈ അവിടെ സ്വാമിയുടെ വീടിൻ്റെ ക്ഷേത്രത്തിൽ ഭക്ഷണം വലിയ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടോ അതിൻ്റെ സ സദ്യയും ആ മറ്റ് സദ്യ ഒക്കെ ഒരുക്കാൻ പറ്റുന്ന ആൾ സ്വാമിയുടെ അറിവിൽ നല്ല ആളുകളുണ്ടോ

ആ അതെ അത് അത് അത് സ്വാമി ഞാൻ ഇപ്പോൾ ഈ അടുത്ത മാസത്തേക്കായിരുന്നു നാൾ എൻ്റെ മോളുടെ നാൾ ചോതിയാണ് ചോതി അപ്പോൾ അത് അടുത്ത മാസത്തേക്ക് ഒരു ഒരു ഒരു മുഹൂർത്തം ഉള്ള നല്ല ദിവസം ഏതെങ്കിലുമ ഉണ്ടോ ഈ അടുത്ത മാസം തന്നെ ആ നല്ല അല്ല ചോതിക്ക് അല്ല അല്ല അങ്ങനെ അല്ല എനിക്ക് എങ്കിൽ ആ ഒ ഒരാഴ്ച്ചക്കകത്ത് നടത്താനുള്ള ഒരു സംവിധാനം അല്ല ഈ അടുത്ത മാസം തന്നെ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇരിക്കുന്നത് അപ്പം അത് ആ അതുശരി ആ